നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് രീതി മാറ്റണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട് കാരണം ഈ ഈ വർഷം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ മാസത്തിലാണ് ഭയങ്കര ചൂടുള്ള സമയത്ത് ഇത്രയും ക്യൂ നിന്ന് നമ്മൾ വോട്ടിടാൻ പോയത് പല ജനങ്ങളിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഏപ്രിൽ മാസത്തിൽ ഭയങ്കര ചൂടുള്ളൊരു സമയത്തായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് വോട്ടിടാൻ പല ആൾക്കാരും വന്നിട്ട് വന്നിട്ടില്ലായിരുന്നു പല വിദേശരാജ്യങ്ങളിലും ഈ ക്യു നിന്നുള്ള തിരഞ്ഞെടുപ്പിനെ തിരഞ്ഞെടുക്കണ സിസ്റ്റം ഇന്നൊരുപാട് മാറിയിട്ടുണ്ട് അതെങ്കിലും കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യ ഒട്ടാകെ ഈ തിരഞ്ഞെടുപ്പ് രീതി മാറി നല്ല രീതിയിലുള്ള അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ അതായത് അവരുടെ ജോലി സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് വെക്കുന്ന മെഷീൻ വെച്ച് അവരുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രീതികൾ വന്നിരുന്നെങ്കിൽ നമ്മുടെ വോട്ടിങ്ങ് ശതമാനമൊക്കെ ഇത്രയും കുറയില്ല എന്നെപ്പോഴും തോന്നാറുണ്ട് അറുപത് ശതമാനം മാത്രമായിരുന്നു ഇപ്രാവശ്യത്തെ വോട്ടിങ്ങ് ശതമാനം അത് നമുക്കൊരു എഴുപത് ശതമാനമോ എമ്പത് ശതമാനമെങ്കിലും ആക്കണമെങ്കിൽ ഇങ്ങനെയൊരു ചൂട് സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തേണ്ട ആവിശ്യമില്ലായിരുന്നു വേറെയേതെങ്കിലും ജനുവരിയിലൊ ഫെബ്രുവരിയിലൊ നടത്തിയിരുന്നെങ്കിൽപ്പോലും ഇത്രയും ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാക്കില്ലായിരുന്നു അതൊന്നും കഴിഞ്ഞവർഷം കഴിഞ്ഞ വർഷം നടന്ന പല ചർച്ചകളിലും ഈ ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞിരുന്നു ഈ വർഷം തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് അപ്പം ഈ വർഷം തിരെഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നനങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് വേണം തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതെന്ന് പല ചർച്ചകളും നടന്നിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രാബല്യത്തിൽ വന്നില്ല അതുകൊണ്ട് ഇനി നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള രീതിയിലൊരു തിരെഞ്ഞെടുപ്പ് നടത്തുക എന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും തന്നെ ഒരു അഭിപ്രായമായിരുന്നു ഏകദേശം പോളിങ്ങ് ശതമാനം വളരെയധികം കുറയാനുള്ള കാരണം ഈ മോശമായ ഒരു കാലാവസ്ഥയിൽ തിരഞ്ഞെടുപ്പ് നടത്തി എന്നുള്ളതാണ് എല്ലാവരുടെയും തന്നെ അഭിപ്രായം ഇത്രയും വർഷങ്ങളായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പത്തെഴുപത്തഞ്ച് വർഷത്തോളം കഴിഞ്ഞു ഇനിയും നമ്മൾ ആ പ്രാകൃത രീതിയിൽത്തന്നെയാണ് തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ കാലമൊരുപാട് പുരോഗമിച്ച് മുന്നിലോട്ട് വന്നു ധാരാളം പല പല ഫെസിലിറ്റീസുകൾ പല രീതിയിലുള്ള വികാസങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് നല്ല നല്ല നേതാക്കളെ തിരെഞ്ഞെടുക്കാൻ വേണ്ടി ജനങ്ങളുടെ പങ്കാളിത്തം മുഴുവനായിട്ടും ഉറപ്പുവരുത്തേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെയൊരു കർത്തവ്യം തന്നെയാണ് അതിനുവേണ്ടി അവർ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കുറച്ചുകൊണ്ടുള്ള തിരെഞ്ഞെടുപ്പ് രീതികൾ അവലമ്പിക്കണം എന്ന് എപ്പോഴും നമ്മൾ പല രീതിയിലും മാധ്യമങ്ങൾ വഴിയും ചർച്ചകൾ വഴിയും അവർക്ക് മുമ്പിലെത്തിക്കുക തന്നെ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു തിരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി ഈ പ്രശ്നങ്ങളെല്ലാം സാധൂകരിക്കണമെന്ന് ആ എപ്പോഴും അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയാറുണ്ട്